ഞാൻ വാങ്ങിയ പ്രൊഡക്റ്റ് മൊബൈൽ ഫോണായിരുന്നു ഈ ഫോണിനെക്കുറിച്ച് പറയുകയാണെങ്കില് ഇതിൻറ്റെ സ്റ്റോറേജൊക്കെ അത്യാവശ്യം നല്ല സ്റ്റോറേജുണ്ട് പിന്നെ റോം റാം എല്ലാം ഞാൻ ഉദ്ദേശിച്ച ആ ഒരു രീതിയിൽത്തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിലെ ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കില് ഇതിൻറ്റെ ക്ലാരിറ്റി എനിക്ക് അടിപൊളിയാണ് ഇതിൻറ്റെ സൂമൊക്കെ ഒരത്യാവശ്യമൊരു ഒരു ഫിഫ്റ്റി റ്റു ഹൺഡ്രഡ് മീറ്റേഴ്സ്സ് ദൂരെയുള്ള സാധനമൊക്കെ നല്ല വ്യക്തമായിട്ട് എനിക്ക് സൂം ചെയ്യുമ്പോള് കിട്ടുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഇതിൻറ്റെ ക്ലാരിറ്റിയില് ഞാന് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡാണ് പിന്നെ പറയുകയാണെങ്കില് എനിക്ക് ഈ ഫോണിൻറ്റെ കളര് അതെനിക്ക് ഭയങ്കരം ഇഷ്ടമായി കാരണം ആ ഒരു കോമ്പോ ഒരു വൈറ്റ് ബ്ലൂ കോമ്പോ അതെനിക്കൊത്തിരി ഇഷ്ടമായി പിന്നെ ഫോണ് ഹാൻഡില് ചെയ്യാന് ഭയങ്കരം സ്മൂത്താണ് കാരണം ഭയങ്കരം സ്ലിമ്മാണിത് അതുകൊണ്ട് തന്നെ എനിക്ക് പിടിച്ചുകൊണ്ട് നടക്കാന് ലൈറ്റ് വേയ്റ്റാണ് സോ നമ്മുടെ കയ്യിലിപ്പോള് ഫോണുണ്ടെങ്കിൽ എനിക്കത് ഉള്ളതുപോലെയൊന്നും തോന്നുന്നില്ല അതേപോലെ തന്നെ ഇതിൻറ്റെ ചാർജിങ് പറയാതിരിക്കാൻ വയ്യ കാരണം രണ്ട് മണിക്കൂര് ഞാൻ ചാർജ് ചെയ്തിട്ട് തന്നെ എനിക്കത് സെവൻ ടു ഏയ്റ്റ് ഹവേഴ്സൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഇതിന്റെ ചാർജിങ്ങ് എനിക്ക് ഞാന് കണ്ടിന്യുവസായിട്ട് ഫോർ റ്റു ഫൈവ് ഹവേഴ്സൊക്കെ ഫോൺ യൂസ് ചെയ്താലും എൻറ്റെ ഫോണ് അധികം ചൂടാകുന്നില്ല അതുകൊണ്ടുതന്നെ അതിൻറ്റെ ഹീറ്റ് അധികമാകാത്തതു കൊണ്ടുതന്നെ ഇതെനിക്ക് ഭയങ്കരം ഇഷ്ടമായി പിന്നെ ഓവറോള് ഇത് യൂസ് ചെയ്യാൻ അടിപൊളിയാണ് നല്ല സ്മൂത്താണ് ആപ്ലികേഷൻസൊക്കെ എടുക്കുമ്പോഴത്തേക്കും നമുക്കെന്താണ് അടിപൊളിയായിട്ട് സ്മൂത്തായിട്ട് വരുന്നുണ്ട് ജസ്റ്റൊരു കുഞ്ഞ് ടച്ച് തന്നെ ടച്ചൊക്കെ ഭയങ്കരം വർക്കിങ്ങാണ് അതുപോലെതന്നെ എനിക്ക് ഇതിൻറ്റെ കൂടെ ഒരു കോമ്പ്ലിമെൻറ്ററിയായിട്ട് ഇയർഫോൺ കിട്ടിയിട്ടുണ്ടായിരുന്നു അതും അടിപൊളിയാണ് എനിക്ക് ഓവറോള് ഈ ഫോണിനെക്കുറിച്ച് നോക്കുകയാണെങ്കില് ഇതിന് പറയത്തക്ക രീതിയിലുള്ള ഒരു നെഗറ്റിവ് കമൻറ്റൊന്നും എനിക്ക് പറയാനില്ല കാരണം അമേസിങ്ങാണ് ഫോണ് ക്ലാരിറ്റി സ്റ്റോറേജ് അതേപോലെതന്നെ ചാർജിങ്ങ് ഒക്കെ അടിപൊളിയാണ് പിന്നെ ഫോൺ യൂസ് ചെയ്യാൻ തന്നെ ഭയങ്കരം സ്മൂത്തുമാണ്